ഇന്നത്തെക്കാലത്തെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ യുവാക്കൾക്കെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പഠിക്കുന്ന ജോലി അതായത് നമ്മൾ പഠിക്കും നമ്മൾ കഷ്ട്ടപ്പെട്ട് ചിലപ്പോൾ അത്രയ്ക്ക് കഷ്ടപ്പെട്ട് പൈസയൊക്കെ ചിലവാക്കി അതായത് നമ്മളിപ്പോൾ ലോൺ വരെ എടുത്തിട്ടായിരിക്കും നമ്മള് പല നേഴ്സിങ്ങിൻ്റെ കാര്യമൊന്നും ഞാൻ പറയുന്നില്ല ബാക്കി പല കോഴ്സുകളും നമ്മള് പഠിക്കുക അപ്പോഴെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ എൻജിനീയറിങ്ങ് അങ്ങനത്തെ കാര്യങ്ങള് പക്ഷെ നമുക്ക് ഒരിക്കലും ആ ഒരു അതായത് പിന്നെ നമ്മൾ പഠിക്കുന്നതിൻ്റെ ഒരു ഇത് ഒരിക്കലും നമുക്ക് കിട്ടുന്നില്ല അപ്പോൾ അതായത് ചിലവരുടെ കെയ്സിൽ നമ്മള് പഠിക്കുന്ന ജോലി കിട്ടില്ല നമ്മൾ എൻജിനീയറിങ്ങൊക്കെ പഠിച്ചിട്ട് കെട്ടുപണിക്ക് പോകുന്ന ഒരുപാട് പേര് അങ്ങനെ കെട്ട് കെട്ട് പണിത്തൊഴിലാളികള് തന്നെ അങ്ങനെ ഒരുപാട് പേരുണ്ട് അപ്പോഴെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ നമുക്കുദ്ദേശിക്കുന്ന ജോലി കാര്യങ്ങള് കിട്ടുന്നില്ല അതായത് നമ്മുടെ ക്വാളിഫിക്കേഷനനുസരിച്ചിട്ടുള്ള ജോലി നമുക്ക് കിട്ടുന്നില്ല ജോലി കിട്ടിയാലും നമുക്കതിനനുസരിച്ചുള്ള സാലറി ഇല്ല അപ്പോൾ അത് ഭയങ്കര ഒരു പ്രശ്നമായിട്ട് കൊണ്ടിരിക്കുകയാണിപ്പോൾ അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ യുവാക്കൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ തൊഴിലവസരങ്ങള് ഏറ്റവും വലിയ ഒരു വെല്ലുവിളിയെന്ന് വച്ചിട്ടുണ്ടെങ്കിലതാണ്